വിദ്യാഭ്യാസ വ്യവസായത്തിൽ സാങ്കേതിതവിദ്യ നല്ല രീതിയിൽ തന്നെ സഹായമായിട്ടുണ്ട് ഒന്നാമത് ഓൺലൈൻ ക്ലാസ്സെടുക്കുവാണെങ്കിൽ തന്നെ കൊറോണ ബാധിച്ചിരുന്ന സമയത്ത് കുട്ടികൾക്ക് സ്കൂളിലോ കോളേജിലോ അല്ലേൽ വേറെ എന്തേലും ഇസ്റ്റിറ്റൂട്ടിൽ പോകുന്ന കുട്ടികൾക്കൊന്നും പോകാനേ പറ്റിയിരുന്നില്ല അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സ് വഴിയാണ് നമ്മൾ പഠിക്കുവൊക്കെ ചെയ്തോണ്ടിരുന്നത് ഞാൻ പോലും കോളേജിൽ പോക്കോണ്ടിരുന്നപ്പോൾ പോകാൻ പറ്റാതായിപ്പോയി ഇപ്പോൾ ഒരു വർഷത്തോളം ഓൺലൈൻ ക്ലാസ്സായിരുന്നു ആശ്രയമായിട്ട് ഉണ്ടായിരുന്നത് അപ്പം എക്സാം പോലും ഓൺലൈൻൽ മിക്ക കുട്ടികൾക്കും എക്സാം ഓൺലൈൻ വഴി തന്നായിരുന്നു ഞങ്ങൾക്കക്കെ പിന്നെ കൊറോണ മാറിയതിന് ശേഷമാണ് എക്സാം വെച്ചത് അപ്പോൾ ഓൺലൈൻ ക്ലാസ് വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകാരം ആയിട്ടുണ്ട് പിന്നെ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുമ്പം അതായത് യൂട്യൂബ് വീഡിയോസ് വഴീം ഒരുപാട് നമുക്കിപ്പം അറിയാൻ വേണ്ടി അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളക്കെ പഠിക്കാനായിട്ട് യൂട്യൂബ് വീഡിയോ തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്തേലും ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടാനായിട്ട് കൂടുതലായിട്ടും നമുക്ക് യൂട്യൂബ് തന്നെ യൂട്യൂബ് വഴിയാണ് കൂടുതലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് യുട്യൂബ് വഴി തന്നെയാണ് അതിൽ നമുക്കിപ്പം എന്തേലുവക്കെ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ എന്തേലും വിഭവങ്ങളുണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തേലും ബ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ അല്ലേ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലൊണ്ട് നമുക്കിപ്പം എന്തേലും ഒരു ഇപ്പം കുട്ടികൾക്കാണേലും എന്തേലും ഒക്കെ ഫുഡ് കൊടുക്കണം നമുക്ക് നമ്മൾ നമുക്കറിയാത്ത ഒരുപാട് ഫുഡുകൾ ചിലപ്പം അതിനകത്ത് ഒരോരുത്തരും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് ഇട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഓരോ നമ്മൾക്ക് നമ്മുടെ നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ കോഴ്സുകളുടേം കാര്യങ്ങൾ ഓരോ പ്രൊഫസർ ഓരോ ടീച്ചേഴ്സും പറയുന്നെയൊക്കെ യൂട്യൂബ് വഴി നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അതുപോലെ ആണ് ഓൺലൈൻ കോഴ്സ് ഓൺലൈൻ കോഴ്സെന്ന് പറയുമ്പം ഇപ്പം നമുക്ക് ഫോണെടുത്താൽ തന്നെ കൂടുതലും കാണാൻ പറ്റുന്നത് ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് ഓൺലൈൻ വഴി ഇന്നത് വീട്ടിലിരുന്ന് വരുമാനം നേടാം പിന്നെ കുറഞ്ഞ ചിലവിൽ കുട്ടികൾക്ക് പഠിക്കാം പിന്നെ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഓൺലൈൻ ആപ്പുകളുണ്ടിപ്പം സൈലം പിന്നെ ഇംഗ്ലീഷ് കഫേ അങ്ങനക്കെ ഇഷ്ടം പോലെ പിന്നെ ആപ്പുകൾ നമുക്കിപ്പം കാണാൻ പറ്റും ഇപ്പം ഇത്രേം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ചിലർ ചോദിക്കും വാട്ട്സ്ആപ്പ് വഴി നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ ഓൺലൈൻ കോഴ്സുകൾ വഴി അതായത് ഓൺലൈൻ വഴി നമുക്ക് ഓരോ കോഴ്സുകളും പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈൻ അഡ്മിഷൻ എടുക്കാൻ പറ്റും ഓൺലൈൻ വഴി തന്നെ ഇപ്പ അഡ്മിഷൻ ഇപ്പം നമുക്കിവിടിരുന്ന് ഇപ്പം എന്തേലും സാഹചര്യത്തിൽ പോകാൻ പറ്റുകേല ഓൺലൈനിൽ ഇത്ര രൂപ പേയ്മെന്റ് അടക്കുക അതിനു ശേഷം നമുക്ക് ഓൺലൈൻ വഴി അഡ്മിഷൻ എടുക്കാം ഹിപ്പ്സ്സ് റിസർച്ച് അത് ഇതെല്ലാം അത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട തന്നാണ് നമുക്ക് ഓൺലൈൻ വഴി മിക്ക നമുക്കിപ്പം ചെയ്യാൻ പറ്റില്ല പാടായ കാര്യങ്ങൾ പോലും ഓൺലൈനിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നേരത്തേയെക്കേന്ന് പറയുമ്പോൾ ഈ അക്ഷയേലക്കെ പോയി എന്തേലും ഒക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തേലും ഡെത്ത് സർട്ടിഫിക്കറ്റോ ബെർത്ത് സർട്ടിഫിക്കറ്റോ എന്തേലുവക്കെ നമുക്ക് പോയി അപേക്ഷ കൊടുക്കണം ഇപ്പം എല്ലാം ഓൺലൈൻ വഴി ആയോണ്ട് ഓൺലൈനി കയറുക അപേക്ഷ വെക്കുവാ അതുപോലെ നമുക്ക് പി എസ് സി ഈ പി എസ് സീ എക്സാം വരുമ്പം ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ അതിൻ്റെ നമ്മുടെ മെയിലിൽ വരും അത് നമ്മൾ എക്സാം എഴുതാൻ അതക്കെ ഓരോ കാര്യങ്ങളിപ്പം മെയിലിൽ വരികയാണ് ചെയ്യുന്നത് ഓരോ എക്സാമും ഓൺലൈൻ വഴി ആണ് നമുക്കിപ്പം കൂടുതലും ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ളത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പൊഴും അത് നമുക്ക് ഓൺലൈൻ വഴി തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്